അച്ചടി മാധ്യമമായ പത്രം മാസിക അത് അതാണ് കൂടുതൽ അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നു അതിനാകുമ്പം കുറച്ച് നമുക്ക് വായിച്ചു മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ അതിനോടാണ് എനിക്ക് കൂടുതൽ താൽപര്യം വാർത്താ ചാനലുകൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളോട് വലിയ താല്പര്യം തോന്നുന്നില്ല അതു കാരണം മാധ്യമങ്ങളൊന്നും സത്യസന്ധമായ കാര്യങ്ങളിലൂടെ ആരും കടന്നു പോകുന്നില്ല എല്ലാവരും അവരവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഉന്നതിക്കു വേണ്ടിയുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നൊരു വേദിയായി ഇന്ന് ചാനലുകളെല്ലാം മാറിയിരിക്കാ അധഃപതിച്ചിരിക്കാ മാറിയെന്നു പറഞ്ഞാൽ പോരാ അധഃപ്പതിച്ചിരിക്കുന്നു പിന്നെ പത്രം ഇ പത്രങ്ങൾ പണ്ടൊക്കെ ഉള്ള ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എല്ലാം പത്രത്തിലും സത്യസന്ധമായ കാര്യങ്ങൾ നെഗറ്റീവായതൊന്നും അല്ല വരുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു ഇന്നിപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളിലും ഇന്ന് നെഗറ്റീവ് പോ എല്ലാം പോസിറ്റീവ് കാര്യങ്ങളൊന്നും പറയാൻ ആർക്കും സത്യത്തിന് വിലയില്ലാതെ എന്നാ പറയുന്നത് നേര് കണ്ണിൽക്കണ്ട കാര്യത്തിനു പോലും തർക്കിച്ച് സത്യമല്ലയെന്നു നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ചാനലുകളൊക്കെ അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പം പത്രങ്ങളും അതിനോട് അനുകൂലിച്ചു കൊണ്ടാണ് ഇന്നത്തെ പോക്കും പത്രങ്ങളുടെ പോക്കും എല്ലാറ്റിനകത്തും രാഷ്ട്രീയം കലർത്തി ഇന്നിപ്പോൾ എല്ലാറ്റിനകത്തും രാഷ്ട്രീയമാണ് മെയിനായിട്ട് കലർത്തി കൊണ്ട് പോകുന്നത് അവർ എല്ലാ പാർട്ടി അടിസ്ഥാനത്തിലും ചാനലുകൾ മത അടിസ്ഥാനത്തിലും ചാനലുകൾ എല്ലാറ്റിലും ഇതേയുള്ളൂ ഒന്നിനകത്തും ഒരു സാധാരണക്കാരുടെ ഒരു ആവശ്യങ്ങളും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യത്തിലിടപെടാനോ ഒന്നും ഇവർക്കാർക്കും നേരമില്ല ഇവരെല്ലാം അവരവരുടെ കാര്യങ്ങൾക്ക് പിന്നെ പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സകല മാധ്യമങ്ങളും ചാനലുകളും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതു അതിനോട് അതാണ് അവർ തങ്ങിലുള്ള വ്യത്യാസം പത്രങ്ങൾ ചാനലുകളിൽ ഓൾറെഡി നമുക്ക് കാര്യങ്ങളെല്ലാം അപ്പപ്പം അറിയാൻ പറ്റും പത്രങ്ങളിലൂടെ വേറെ വിശദീകരണങ്ങളും വിവരണങ്ങളും സഹിതമാണ് പത്രത്തിൽ വരുന്നത് അപ്പം നമ്മളെല്ലാം അറിയുന്ന കാര്യങ്ങൾ വാർത്താ മാധ്യമ ചാനലുകളിൽ കൂടി പെട്ടെന്ന് സ്പോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പം നമുക്കറിയാൻ പറ്റും അതു കൊണ്ട് പത്രം പിറ്റേ ദിവസത്തേക്കല്ലേ പഴയതായിട്ടല്ലേ വരുന്നത് മാസികകളൊക്കെ ആദ്യ ആധുനിക കാലത്തേതു പോലെ ആയിപ്പോയി ഇന്ന് അതിനോടൊന്നും ഒരു പ്രസക്തിയില്ല ആർക്കും അതൊന്നും വായിക്കാൻ സമയമില്ല പിന്നെ കൂടുതൽ വിവരണങ്ങളൊന്നും വായിക്കാനൊന്നും ആർക്കും സമയമില്ല അപ്പം അതു കൊണ്ട് ആ ഹെഡ് ന്യൂസ് മാത്രം നോക്കി എല്ലാവരും എല്ലാവർക്കും അതിനോട് യോജി താല്പര്യം ഉള്ളൂ മാധ്യമം എല്ലാം മാധ്യമ ധർമ്മം ആരും നിർവ്വഹിക്കുന്നില്ല എല്ലാവരും പണത്തിൻ്റെ പുറകെയാണിന്ന് ഇന്നത്തെ ലോകത്തിലുള്ള പോക്കവർക്ക് അല്ലാതെ പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകളുടെ ഒരു പ്രശ്നത്തിലിടപെടാൻ ആർക്കും ഒരു താല്പര്യം ഇല്ല എല്ലാവരും അവരവർക്ക് സാമ്പത്തികം വളരുന്നത് ഏതു രീതിയിലാണോ ആ രീതിയോടാണ് എല്ലാവർക്കും എല്ലാവരും അതിനു മുന്നോടിയായി മുന്നോടിയായി അതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി അവർ പരിശ്രമിക്കുന്നു അതിനു വേണ്ടി അവർ പോകുന്നു പത്രങ്ങൾ പിന്നെ ഇന്നിപ്പം എല്ലാറ്റിനും ഇത് പിന്നെ പൈസയും സാമ്പത്തികമായിട്ടും അതു കൊണ്ട് ആ സമയം സമയമാണ് ഇല്ലാത്തത് ആർക്കും ഇന്ന് സമയമില്ല പത്രം വായിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണമല്ലോ അതു കൊണ്ടാണ് പത്രമാധ്യമങ്ങളിൽ നിന്ന് എല്ലാവരും തഴഞ്ഞു മാറ്റി വെക്കുന്നത് ഇന്നിപ്പം എല്ലാവർക്കും ഫോ ഇത്കൂട്ട് ടി വി ഓണാക്കി അപ്പം എല്ലാ ചാനലുകളുണ്ട് ഇഷ്ടം പോലെ ചാനലുകളുണ്ട് ഏതു വേണമെങ്കിലും കാണാമല്ലോ അതിനകത്ത് അതു കൊണ്ട് പെട്ടെന്നുള്ള എല്ലാ എല്ലാ ഇന്നെല്ലാവർക്കും സ്പോർട്ടിൽ കാര്യങ്ങൾ അറിയാനും ആ ഹെഡ് ന്യൂസ് മാത്രം നോക്കാനും മാത്രം സമയമുള്ളതു കൊണ്ട് ആ ചാനലുകളോടാണ് ഇന്നെല്ലാവർക്കും താല്പര്യം പൊതുവെ എനിക്കും അതിനോട് തന്നെ യോജിപ്പ് കാരണം സമയമാണല്ലോ എല്ലാവർക്കും വിലപ്പെട്ട സാ ഇരിക്കുന്നത് സമയം കുറവാണ് എല്ലാവർക്കും അതു കൊണ്ട് അതിനോട് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടുന്നു ഓക്കെ